ഇൻറർനെറ്റ് വന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതശൈലി വളരെയധികം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അതുപോലെ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി നമുക്ക് ജീവിതത്തിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടത്താനുള്ള ഒരു ഇത് കിട്ടീന് ഒരവസരം കിട്ടിയതാണ് ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്താൻ നിമിഷ നേരങ്ങൾ കൊണ്ട് കഴിയും അപ്പോൾ ഇനി ഇൻകേസ് കടകൾ സാധനം വാങ്ങാൻ പോകുകയാണെങ്കിൽ ആ സാധനങ്ങൾ അയച്ച് കൊടുക്കാനുള്ള അയച്ച് കൊടുക്കാൻ പെട്ടെന്ന് നമ്മൾ എന്താക്കും പൈസ അയച്ച് കൊടുക്കാനും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ നേരിട്ട് കൈയ്യിൽ കൊടുക്കണം ഇപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല ജെസ്റ്റ് ഒരു സ്കാനറ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും എന്നിട്ട് പൈസ അയയ്ക്കാൻ കഴിയും പിന്നെ ഷോപ്പിങ് നടത്തുമ്പോൾ ഒക്കെ ഇൻറ്റർനെറ്റ് ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ നടത്താം ഇപ്പം ഫ്ലിപ്പ്കാർഡ് ആമസോണ് ഇതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാകാം ഓൺലൈൻ ഷോപ്പിംഗ നടത്താം അ ഓൺലൈൻ ഷോപ്പിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ ഒരു ചില പോലെ അത് നമ്മൾ വീട്ടിലേക്ക് സാധനം എത്തിച്ച് തരും ഓൺലൈൻ ഷോപ്പിംങ് എന്ന് പറയുമ്പോൾ അതിലോട്ട് ഈ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ സ്വിഗ്ഗി അത് പോലെ അങ്ങനത്തെ അപ്പകളും നിന്നൊക്കെ നമുക്ക് എന്താക്കാം നിമിഷ നേരങ്ങൾ കൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ടൊക്കെ നമുക്ക് ബിരിയാണി അത്പോലത്തെ സാധനങ്ങൾ അപ്പം ഓൺലൈനിൽ നമുക്ക് പർച്ചേസ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ ഇൻറർനെറ്റ് വന്നതോട് കൂടി എന്തായി നമ്മുടെ ജീവിത ശൈലികളൊക്കെ മാറി വളരെ അപ് ഗ്രേഡ് ആയി എന്ന് പറയാം പിന്നെ പറയുകയാണെങ്കിൽ ഈ ഇൻറർനെറ്റിലൂടെ നമുക്ക് എന്താകും ലോകത്തുള്ള ഏത് കാര്യമാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് പോലെ എ ഐ വന്നതിലൂടെ എ ഐ ഇൻന്റർനെറ്റിലൂടെയും കൂടി കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞത് ഒക്കെ കൂടുതൽ സ്പീഡ് കൂടാനുള്ള ഒരു അവസരമായി എന്ന് അറിയിക്കുകയാണ് പിന്നെ ഈ ഇൻന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഒരു സോയിസ് ആണ് എന്ത് ഇൻറർനെറ്റ് എന്നുള്ളത്